ഹലോ അതെ അതെ

ആ ആ ആ

ഉണ്ടുണ്ട് സ്ഥലം ഇഷ്ടം പോലെ നമുക്ക് അവൈലബിളാണ് പിന്നെ ഏത് ടൈപ്പ് എത്ര റേഞ്ചാണ് നമ്മളുടെ അങ്ങനെ അതൊക്കൊന്നു അറിഞ്ഞാലേ നമുക്ക് പിന്നെ ലൊക്കേഷൻ സജസ്റ്റെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പത്ത് സെൻറ്റ് അന്നേരം അപ്പോഴത്തേക്കും എത്ര രൂപ വരെ അഫോർഡ് ചെയ്യാൻ പറ്റും കാരണച്ച് കഴിഞ്ഞാൽ ആ ഏരിയേലൊക്കെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് സെൻറ്റിന് പിന്നെ പതിനഞ്ച് ലക്ഷം പിന്നെ ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ സെൻറ്റിന് പോവുന്ന ന സ്ഥലങ്ങളാണ് ബീച്ച് സൈഡുന്ന് പറയുന്നത് അവിടെ കാരണച്ച് കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് പിന്നെ പർപ്പസിലും കൂടി ആൾക്കാർ വന്ന് ഇത്തിരി സ്ഥലം മേടിക്കുന്നത് കൊണ്ട് പലരും റിസോട്ടൊക്കെ ഇടാൻ വേണ്ടി അവിടെ സ്ഥലം മേടിക്കുന്നത് കൊണ്ട് അവിടെ സ്ഥലത്തിന് കുറച്ച് വില കൂടുതലാണ് ഇപ്പം നമുക്കവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ട് അതേ സമയം ഈ പിന്നെ തൊർണൻകുളങ്ങര നേ കൈചൂണ്ടിമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ നോക്കുവാണെന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ഥലം വില കുറഞ്ഞ് നേ നാല് ലക്ഷം അഞ്ച് ലക്ഷം എന്ന ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും നമുക്ക് അതോ ഈ നേ ഈ റേറ്റ് അഫോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചേറിയ നോക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നോക്കാം നമുക്കീ ഭാഗത്തുള്ള സ്ഥലങ്ങളുമൊക്കെ നല്ല സ്ഥലങ്ങളാണ് റെസിഡെൻഷ്യൽ ഏരിയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ല എന്നാണ് നേ ജെപ്പാൻ കുടിവെള്ളത്തിൻ്റെ അവൈലബിളിറ്റിയുണ്ട് ആ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഏരിയ ഇത് നല്ലതാണ് കൈചൂണ്ടി നമുക്ക് അങ്ങോട്ടാര്യാടാ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടാതിപ്പം നേ മറ്റേ ഗ്യാസ് നേ ലൈനും ഒക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ആ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് വിലയും കുറവാണ് ഈ ബീച്ചേരിയ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉണ്ട് ഏത് ഭാഗം വേണമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് തന്നെ പറയാൻ ഇന്ന് ഞാൻ കാണിച്ച് തരാം ഒരു ആ

ആ അത്രയാവും അത്രയാവും കാരണച്ച് കഴിഞ്ഞാൽ റിസോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നേ ബീച്ച് ഭാഗത്ത് പിന്നെ കുറച്ച് കൂടുതൽ ഇത് വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വരുന്നത് മനസ്സിലായില്ലേ ആ പക്ഷേ ഇത് ഈ ഏരിയൊക്കെ നല്ലതാണ് കേട്ടോ ഇന്ന് ഇന്ന് ടൂറിസം പർപ്പസിലും ആൾക്കാരീ ഭാഗത്തോട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നല്ല റെഫറൻഷ്യൽ ഏരിയാണ് മറ്റ് നേ ശല്യങ്ങളൊന്നുമില്ല പിന്നെ ശാന്തം സമാധാനമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇല്ല ഈ പറഞ്ഞ സ്ഥലത്ത് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നേ ടൗൺ ഭാഗത്തെങ്ങും തന്നെ അങ്ങനെ ബാധിച്ചില്ല നമ്മുടെ പുന്നമട ഏരിയ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ആ ഭാഗത്ത് കുറച്ച് ബാധിച്ചെങ്കിലും ഈ കൈ ചൂണ്ടിമുക്ക് പിന്നെ ആ ഒരു കലവൂർ പിന്നെ ആര്യൻ ആ ഭാഗത്തൊന്നും പിന്നെ ആ അത് ബാധിച്ചില്ലായിരുന്നു പിന്നെ അത് നേ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല ആ അഞ്ച് ലക്ഷം രൂപ തൊട്ടങ്ങോട്ട് പല റേഞ്ചിലുള്ളതുണ്ട് നമ്മൾ പിന്നെ വണ്ടി കയറുന്ന സ്ഥലം പിന്നെ കാറ് കയറി പോകാവുന്ന രീതീലുള്ളത് ഇനി ഇനി ടു വീലറ് മാത്രം കയറിയാൽ മതിയെങ്കിൽ ആ ഒരു രീതീയിൽ പിന്നെ ഇന്ന് വല്ല ടിപ്പറൊക്കെ വന്ന് ആ ആ ഇന്ന് ആ രീതീയിലുള്ള സ്ഥലം നമുക്ക് കിട്ടും അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ പിന്നെ പല സ്ഥലത്തായിട്ടുണ്ട് നമുക്ക് ഇന്ന് എപ്പോഴാണ് സമയം ഉള്ളേന്നെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാനത് പിന്നെ പല സ്ഥലങ്ങൾ കാണിച്ച് തരാം അതിൽ നിന്നേതാന്ന് താൽപ്പര്യമുള്ളത് ഉണ്ടുണ്ടുണ്ട് ഉണ്ടുണ്ട് നമുക്കടുത്ത ദിവസങ്ങളിൽ തന്നെ ചെന്ന് കാണാം ഇന്നിപ്പം ഞാൻ സ്ഥലത്തില്ല അത് കാരണം ഇന്നിപ്പോൾ സമയം ഇല്ല അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ വരെ ഏതെങ്കിലും ദിവസം വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കാണിച്ച് തരാം

ഓക്കെ ഓക്കെ താങ്ക് യൂ